ഇപ്പോൾ നമ്മള് നോക്കുമ്പോൾ കേരളത്തിലുള്ള ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ആൾക്കാരാണിപ്പോൾ നമ്മള് പറയുവാണെങ്കിൽ ഇപ്പോൾ കേരളത്തില് വരുന്നത് ഒരുപാട് ജാതിയി ല് പെട്ടവരുണ്ട് അപ്പോൾ പുറമെന്നൊക്കെ ഇപ്പോൾ ഒരുപാട് അതിഥികള് അതില് എന്താ പറയുക അതിഥിതൊഴിലാളികളൊക്കെ പുറമെന്നിപ്പം കേരളത്തിലേക്ക് ചെ വന്നോണ്ടിരിക്കുവാണ് അപ്പോൾ അവർക്കൊക്കെ അവരവരുടേതായ ചില സംസ്കാരങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം അവര് അവിടന്ന് വന്നിട്ടിപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ ഓരോ ആൾക്കാരാണ് അപ്പോൾ അവരുടെ സംസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ മറ്റ് സ്ഥലത്തേക്ക് വരുമ്പഴും അവർക്ക് പെട്ടന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോണമെന്നില്ല അപ്പോൾ അതിനനുസരിച്ചവര് എന്താ പറയുക മാറ്റങ്ങള് പ്രകടിപ്പിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ വസ്ത്രധാരണമായിക്കോട്ടെ അങ്ങനുള്ള കാര്യങ്ങള് തന്നെ നല്ല മാറ്റങ്ങളുണ്ടാകും പിന്നെ സംസാരരീതി പിന്നെ പറയുവാണെങ്കിൽ എന്താ പറയുക് അവരുടെ വിശ്വാസങ്ങള് അങ്ങനെ ഒരുപാട് കാര്യങ്ങളില് ഒരുപാട് വിശാ വ്യത്യാസങ്ങളുള്ളവരായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ തരത്തിലുള്ള ആൾക്കാരായിരിക്കും കൂടുതല് ഉണ്ടാവുക അപ്പം അതിനനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമെന്നാണ് ഞാൻ പറയുന്നത്